എല്ലാ ആളുകളും ഒത്തു ചേരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പറയുന്നത് വച്ച് കഴിഞ്ഞാൽ ഉത്സവം പള്ളിപ്പെരുന്നാളെല്ലാമാണ് ഇപ്പോൾ ഉത്സവത്തിന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മതക്കാരും വന്ന് ചേരുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട് പള്ളിപ്പെരുന്നാളിനായിക്കോട്ടെ എല്ലാ മതക്കാരും ഞാൻ ഇപ്പം ഞാനെല്ലാം പള്ളിപ്പെരുന്നാളിനെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഞമ്മൾ കണ്ണൂർക്കാർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവം ഉത്സവത്തിന് തെയ്യക്കാലമെല്ലാമാണ് അപ്പം ഞാൻ നമ്മൾ എല്ലാ മതക്കാരും എല്ലാ മതക്കാരും അമ്പലങ്ങളിൽ വരുന്നു ഉത്സവം കാണുന്നു പോവുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതൊന്ന് മതപരമായിട്ടൊന്ന് ഉള്ള പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും ഉത്സവമെല്ലാം കാണാം അതെ ഞാൻ ഇപ്പം നമ്മൾ എല്ലാം എല്ലാവരെയും ഞാൻ ഇപ്പം എല്ലാ എല്ലാവരെയും ഞാൻ കാണാറുണ്ട് ഞമ്മളെ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നതാണ് എനിക്കിഷ്ടം എല്ലാവർക്കും നമുക്കിപ്പം നമുക്ക് നമ്മളെല്ലാം പള്ളിയിലെല്ലാം കയറ്റുന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് എല്ലാവരേയും നമ്മൾ അമ്പലങ്ങളിൽ കയറ്റുന്നതിന് അതുകൊണ്ട് ഇപ്പോൾ ഉത്സവത്തിന് വല്ലതും വന്ന് എല്ലാ പരിപാടികളിലും പങ്കെടുക്കാം ഒന്ന് കച്ചറയൊന്നും ആക്കാണ്ട് എല്ലാം പങ്കെടുത്ത് സന്തോഷത്തോടു കൂടി പോകുന്നത് കാണുന്നതാണ് നമുക്കിഷ്ടം